ഗ്രാമപ്രദേശങ്ങള് സർക്കാർ ഭരണത്തില് മോശമായ പൊതുസേവനങ്ങളെപ്പഴും ഫീൽ ചെയ്യാറുണ്ട് പരിസ്ഥിതിക്ക് അവർക്കൊരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിപ്പാറ ഇരിക്കണ്ട അതുകൊണ്ട് പരിസ്ഥിതി തകർച്ച ഉണ്ടാകാറുണ്ട് ആരോഗ്യ മേഖലയിലും ധാരാളം അസമത്വങ്ങൾ ഉണ്ടാകാറുണ്ട് മോശമായ പൊതു സേവനങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും പൊതുസേവനങ്ങളെല്ലാം തന്നെ ജനങ്ങൾക്ക് നല്ല രീതിയിൽ ലഭ്യമല്ലാതെ ഇരിക്കുക അതായത് ശൗചാലയങ്ങളായാലും ആശുപത്രികളായാലും പൊതുജനസേവന കേന്ദ്രങ്ങളായാലും തന്നെ ജനങ്ങളോട് വളരെ പൊതുജന സേവനകേന്ദ്രങ്ങളിൽ തന്നെ ജനങ്ങളോടൊള്ള ഒരു മോശപ്പെട്ട ഒരു സമീപനമാണ് പലപ്പോഴും കണ്ട് അവര് കാഴ്ച വെക്കാറുള്ളത് പിന്നെ പൊതു ശൗചാലയങ്ങളായാലും വളരെ വൃത്തിഹീനമായ അന്തരീക്ഷമാണെപ്പഴും കാണാറുള്ളത് വിദ്യാലയങ്ങളിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള വിദ്യാലയങ്ങളിൽ പല പല കുട്ടികൾക്ക് വേണ്ടിയുള്ള ആവശ്യകതകളെല്ലാം പൂർത്തീകരിക്കാതെ നിലനിർത്താറുണ്ട് അതുകൊണ്ട് തന്നെ സ്കൂളുകളിലും കുട്ടികൾക്ക് വേണ്ടി ഉള്ള കോളേജുകളിലായാലും അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് സാമൂഹികപരമായ ഒരശാന്തി അതായത് കുറ്റകൃത്യങ്ങളേറ്റവും കൂടുതല് ഗ്രാമപ്രദേശങ്ങളിലാണെപ്പോഴും ഏറ്റവും കൂടുതൽ കണ്ട് വരുന്നത് നഗര പ്രദേശങ്ങളെക്കാളും കുറ്റ കൃത്യങ്ങൾ ഗ്രാമപ്രദേശത്ത് ചെയ്യുമ്പോൾ അതില് ആൾക്കാരുടെ ഇടപെടലുകൾ കുറവായിരിക്കും പോലീസിൻ്റെ ഇടപെലുകൾ ഇടപെടലുകൾ കൊട കുറവായിരിക്കും എന്ന് വിചാരിച്ച് ഒരുപാട് പേര് ഗ്രാമങ്ങളിൽ കുറ്റകൃത്യങ്ങളൊരുപാട് ചെയ്യാറുണ്ട് പോലീസ് പിടിക്കില്ല എന്നൊരു ചിന്തയോടെ ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ പിന്നൊരു രാഷ്ട്രീയമായൊരു പാർശ്വവൽക്കരണം അതായത് ഒരു പല പല രാഷ്ട്രീയ പാർട്ടികൾ ചേരി തിരിഞ്ഞ് അവരുടെ ആ ലാഭത്തിന് വേണ്ടി തന്നെ പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതായത് ഒരു പാർട്ടിയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ മറ്റൊരു പാർട്ടി സമ്മതിക്കാതിരിക്കുക അതായത് നമ്മുടെ ഇവിടുത്തെ റോഡുകള് തന്നെ വളരെ മോശപെട്ട അവസ്ഥയിലൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകള് അതില് ഏറ്റവും കൂടുതല് ഈ ഇതെല്ലം അഫക്റ്റ് ചെയ്യുന്നത് ഇവിടുത്തെ സ്ത്രീകളേയും കുട്ടികളേയും ആണ് അവരുടെ അവരാണ് ഇതിനെല്ലാം ഇരകളാകുന്നത് അതായത് കുറ്റകൃത്യങ്ങളായാലും ഈ സമൂഹത്തിലെ അശാന്തിയിലും ആരോഗ്യ അസമത്വങ്ങളും ഏറ്റവും കൂടുതലിതിൻ്റെ ഫലം അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് അവർക്ക് വേണ്ടിയിട്ടെങ്കിലും അതായത് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ അവര് സമൂഹത്തിൽ ഉത്തരവാദിത്വമുള്ള പൗരന്മാരാവണമെങ്കിൽ നമ്മുടെ സമൂഹം നമ്മുടെ വിദ്യാലയങ്ങളിൽ തന്നെ ഒരു പൗരൻ അതായതൊരു കുട്ടി ചെയ്യേണ്ട കർത്തവ്യങ്ങൾ സമൂഹത്തിന് അവർ എങ്ങനെ ഉയർന്ന് വരണമെന്നുള്ള രീതികൾ പാഠ്യപദ്ധതിയിലും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും പൊതുസേവനങ്ങൾ കുറച്ച് കൂടി ജനസൗഹൃദ പരമായാൽ വളരെ വളരെ നല്ലതായിരിക്കും കാരണം പൊതുസേവനകേന്ദ്രങ്ങളിൽ ചെല്ലുമ്പോൾ ജനങ്ങളോട് വളരെ മോശപ്പെട്ട രീതിയിൽ അവര് പെരുമാറുകയും പിന്നീടവർക്കങ്ങോട്ട് പോയി അവരുടെ ആവശ്യങ്ങൾ അവരെ അറിയിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യാറുണ്ട് പിന്നെ പരിസ്ഥിതി തകർച്ച പരിസ്ഥിതിയിലെ പല പല ഞങ്ങളുടെ പ്രദേശത്തുള്ള ധാരാളം ധാരാളം മല നിരകൾ ഇടിച്ച് നിരത്തി അവിടെയെല്ലാം ക്വാറികളുണ്ടാക്കുന്നുണ്ട് ഈ ക്വാറികൾക്കെല്ലാം ലൈസെൻസോട് കൂടി തന്നെയാണ് അവയെല്ലാം പ്രവർത്തിക്കുന്നത് അപ്പം ഈ മലകളിങ്ങനെ ഇടിച്ച് നിരത്തുമ്പോൾ പരിസ്ഥിതി ഇവിടെ തകർന്ന് കൊണ്ടിരിക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനെതിരായിട്ട് മുന്നോട്ട് വരാറുമില്ല അതിനെതിരെ സംസാരിക്കാറുമില്ല അത് നമ്മുടെ പരിസ്ഥിതിയേയും ഒരു വളരെ മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ട് പോയി കൊണ്ടിരിക്കുകയല്ലേ പിന്നെ ആരോഗ്യമേഖലയിൽ തന്നെ തന്നെ ധാരാളം മരുന്നിൻ്റെ കുറവും ധാരാളം ഉപകരണങ്ങളുടെ കുറവും എല്ലാം ഉണ്ട് നല്ല നല്ല ഫെസിലിറ്റീസുള്ള ആശുപത്രികള് ഗ്രാമപ്രദേശത്ത് വളരെ കുറവാണ് ഇതിനെന്തെങ്കിലുമൊരു മാറ്റങ്ങൾ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ സമൂഹം എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്നൊരു സമൂഹമായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു